ആ അതുല്യ ഉണ്ടോ അതുല്യ ഉണ്ടോ ഞാൻ ജാസ്മിനാണ് ജാസ്മിനാണ് ആ മോളെ ആ മോളെ ഞാൻ മ്യൂസിക് ക്ലാസീന്നാണേ അതുല്യ ഇല്ലേ പുതിയ അഡ്മിഷൻ എടുത്ത കുട്ടി ഇല്ലേ ആ അന്നേരം ക്ലാസിൻ്റെ ആ അതെ അതെ അതെ ആണ് ആണ് ആണ് അങ്ങനെ ആണെങ്കിലേ എൻ്റെ ക്ലാസിൻ്റെ ഷെഡ്യൂൾ ഒക്കെ അറിയണ്ടെയോ ആ ആ ചോദീര് മോളെ നമ്മൾ ക്ലാസിക്കിലും കർണാടിക് ഒക്കെയാണ് ക്ലാസിക്കില് ആണ് കൂടുതൽ പഠിപ്പിക്കുന്നത് അപ്പഴ് ക്ലാസും രാവിലെ നമുക്ക് ഇവിടുന്ന് ബസ് ഒക്കെ അവൈലബിൾ ആക്കി ഒത്തിരി നിങ്ങളുടെ ഏരിയേന്ന് ഒത്തിരി കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ബസ് അറേഞ്ച് ചെയ്ത് തരും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഷെഡ്യൂൾ എന്ന് വെച്ചാൽ രാവിലെ ഈവനിംഗ് നേരത്തെ ക്ലാസാണ് ഞാൻ അറേഞ്ച് ചെയ്യുക രാവിലെ പത്ത് മണി തൊട്ട് ഒരു പന്ത്രണ്ട് മണി വരെ രാവിലെത്തേത് ക്ലാസ് ഉണ്ട് അതിന് ശേഷം നമ്മൾ വൈകുന്നേരം ഉദ്ദേശിക്കുന്നത് വേറെ പാർട്ട് ടൈം ജോലി ചെയ്യുന്നവരുണ്ട് അല്ലാതെ കുറച്ച് സമയം മ്യൂസിക്കിന് വേണ്ടി മാറ്റി വെക്കുന്നവരുണ്ട് ജോലി ചെയ്യുന്നവർ തന്നെ അവർക്ക് വേണ്ടി നമ്മൾ അഞ്ച് മണി തൊട്ട് ഏഴ് മണി വരെയാ ക്ലാസ് ഇങ്ങനെ രണ്ടായിട്ടാണ് ഷെഡ്യൂൾ ഉള്ളത് ആ പ്രായം കുറഞ്ഞ കുട്ടികളെ അങ്ങനെ വിടും നമ്മൾ വലിയ മുതിർന്നവർ ആണെങ്കിൽ തനിയെ പോവാൻ ഒക്കുന്നവർ അങ്ങനെ വിടും അല്ലെങ്കിൽ നമ്മൾ വണ്ടി അറേഞ്ച് ചെയ്യുമല്ലോ അന്നേരം പിന്നെ അതിനകത്ത് ആക്കും വൈകുന്നേരത്ത് വണ്ടി അവൈലബിൾ അല്ലേ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം വിടും അല്ലെങ്കിൽ ആ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വിടാൻ പറ്റത്തുള്ളൂ കാരണം ഒരു ക്ലാസ് മിസ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് റീസ്റ്റാർട്ട് ചെയ്ത് തരുന്നതിൽ പാടുണ്ട് പിന്നെ നമ്മൾ അല്ലേ ആ അത് എടുത്ത് തരുമ്പോൾ ബാക്കി ഉള്ള കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടാവുമല്ലോ അതുകൊണ്ട് രണ്ട് ആ ആ ആ നമ്മൾ അന്ന് ഓ അങ്ങ് ആ നമുക്ക് അല്ലെങ്കിൽ ഒരു വീഡിയോ അത് ചെയ്ത് വെക്കും ചിലപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നതേ അങ്ങനെ അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇങ്ങനെ മുടക്കം ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ താമസിച്ച് വരുക ആണെങ്കിൽ എന്ന് ഒരു ബൈ ചാൻസ് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ചെയ്ത് തരും അപ്പോൾ മോൾ ക്ലാസിൻ്റെ നമ്മൾ പന്ത്രണ്ട് ടീച്ചറുമാർ അവൈലബിൾ ആണ് ഓരോ ക്ലാസിനും ഓരോ ക്ലാസിക്കിൽ ആണോ ലൈ മ്യൂസിക്ക് ആണോ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തന്നെ മിസ്സ് ആയിരിക്കും അപ്പം മോൾ സമയം ഓർത്ത് വെച്ചിട്ട് പത്ത് പത്ത് തൊട്ട് പന്ത്രണ്ട് വരെ ആ പറ ആ അതെ അതെ നമ്മൾ ഒരു ക്ലാസിന് നമ്മൾ ഫൈവ് ഹണ്ട്രഡ് ആണേ ഉദ്ദേശിക്കുന്നത് ഒരു ക്ലാസിന് നമ്മൾ അങ്ങനെ തീർച്ചയായിട്ടും മറ്റുള്ള മ്യൂസിക് ക്ലാസിനെ അപേക്ഷിച്ച് നമുക്ക് കുറവാണ് അവിടെ ഏതാണ്ട് സെവൻ ഹണ്ട്രഡ് ഒക്കെ വരെ വേടിക്കുന്നുണ്ട് ഉം ഉം തീർച്ചയായിട്ടും നമ്മൾ അപ്പോൾ അത് പുറത്ത് ആ ആ

വേണ്ട വേണ്ട നിങ്ങൾക്ക് ഇഷ്ടം ഉള്ള കളർ ഡ്രസ്സ് പിന്നെ നമ്മൾ ഏതെങ്കിലും കോമ്പറ്റിഷനിൽ നമ്മൾ ആയിട്ട് വിടുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകം ഡ്രസ്സ് തയ്പ്പിച്ച് തരും അതിന് എന്തെങ്കിലും എമൗണ്ട് അന്നേരം ആ അന്നേരം നമ്മൾ അഡ്മിഷൻ ഫീ നമ്മൾ ആയിരം രൂപ വെച്ച് ഒരു കുട്ടിയുടെയിൽനിന്ന് വേടിക്കുന്നുണ്ടേ

നമുക്ക് റോഡ് റോഡ്സൈഡ് ആണെങ്കിലും ഇത്തിരി അകത്തോട്ട് കയറണം ഒത്തിരി വോയിസ് ഈ വണ്ടിയുടെ ഒച്ച അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു എന്തര് കൊണ്ട് റോഡിൻ്റെ അടുത്താണെങ്കിലും ഇത്തിരി ഒരിത്തിരി അകത്തോട്ട് അത് നമുക്ക് ഒത്തിരി ബഹളം കേൾക്കാത്ത രീതിയിൽ നമുക്ക് ബസ്സ് വണ്ടി വന്ന് കയറുന്ന ഇടമാണ് എന്നും പറഞ്ഞ് ഒത്തിരി തിരക്കില്ല എന്നും പറഞ്ഞങ്ങ് ഒത്തിരി അകത്തോട്ട് അങ്ങനെ അല്ല നിങ്ങൾക്ക് വരാനുള്ള സൗകര്യം ഉള്ള ഇടം തന്നെയാന്ന് എന്നാലും ഒരു കാം ആ ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണെ അപ്പോൾ മോൾ വിളിച്ച കാര്യങ്ങൾ ആ അല്ല നമ്മൾ നമ്മൾ മിക്സ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത് കാരണം അവിടെ ഒരു ഞാൻ ഒരു മ്യൂസിക് ആണല്ലോ പഠിപ്പിക്കുന്നത് അന്നേരം ബോയ്സിൻ്റെ വോയിസിലും ഗേൾസിൻ്റെ അത് രണ്ടും കൂടെ ഒരുമിച്ച് പഠിപ്പിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് ഞങ്ങളുടെ ഒരു തീരുമാനം പാട്ട് പഠിക്കുന്ന കുട്ടികൾ എപ്പഴും അതാണ് ആ ആ സംഗീതം എന്ന് പറയുന്നത് നമ്മൾ ടൈമോ അല്ലെങ്കിൽ വയസോ പറഞ്ഞ് വയ്ക്കേണ്ട ഒരു സാധനം അല്ല അത് നമുക്ക് അറിവ് എത്രത്തോളം വേണമെന്ന് നമുക്ക് തോന്നുന്നോ ഒരു ബേസിക്ക് ആയിട്ടൊക്കെ നമുക്ക് വേഗം പഠിച്ചെടുക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് വർഷംകൊണ്ട് ബേസിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം എന്നാലും നമ്മൾ കർണ്ണാട്ടിക്കിൽ മ്യൂസിക്കിലോട്ടൊക്കെ ചെല്ലുമ്പഴ് അതിനൊക്കെ ഒത്തിരി കാലതാമസം വരും അത് പഠിച്ചെടുക്കുന്ന കുട്ടിയെ ബേസ് ചെയ്തിരിക്കും പിന്നെ അവരുടെ ആഗ്രഹം സംഗീതം ഒരു കടല് പോലെയാണെന്നാന്നല്ലോ പറയുന്നത് ഉം ഉം അപ്പോൾ നീണ്ട് കിടക്കും മോൾ അന്നേരം ഇനി വല്ലതും അറിയാനുണ്ടോ ആ ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമക്ക് ഇവിടെ എല്ലാം അവൈലബിളാണ് പാട്ടിനെ സംബന്ധിച്ചടത്തോളം എല്ലാം അവൈലബിളാണ് അന്നേരം മോള് ഷെഡ്യൂളൊന്നോർത്ത് വെച്ചേരേ ഇനി എന്തെങ്കിലും ഒണ്ടോ മോളെ ആ എന്നാൽ താങ്ക് യു അന്നേരം നാളെ മുതൽ വരും അല്ലേ അന്നേരം ആദ്യമായിട്ട് വരുമ്പം പേരൻറ്റിനെം കൂടെ ഫീസ് നമുക്ക് നോക്കാം നോക്കാം ഓക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ കുട്ടികളുടെ എണ്ണം അനുസരിച്ച് നമ്മൾ അന്നേരം ഫീസ് കുറയ്ക്കും ഒത്തിരി പേർ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കുറച്ച് തരാം കേട്ടോ താങ്ക് യു ആ അതാണ് നമുക്ക് ആവശ്യം മിടുക്കിയായിട്ട് നന്നായിട്ട് പാടുന്ന കുട്ടി ആണ് നമുക്ക് ആവശ്യം ഓക്കെ ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉം ആ അടിപൊളി അടിപൊളി അടിപൊളി അടിപൊളി അടിപൊളി ആയിട്ടുണ്ട് മോളെ അടിപൊളി നമുക്ക് ഇച്ചിരി ആ അങ്ങനെത്തെ കുറച്ച് ആ ആ ആ തീർച്ചയായിട്ടും ഞങ്ങൾ ഓക്കെ എടുക്കും തീർച്ചയായിട്ടും ആ ഓക്കെ തീർച്ചയായിട്ടും ഉം താങ്ക് യു മോളെ ശരി എന്നാൽ